ആ അതെ പറഞ്ഞോ അല്ല ആ അതെ ഡാ പറഞ്ഞോ ആരായിരുന്നു ആ ആ ആ ആ

ആ ഞാൻ ചോദിക്കുന്നത് റിക്വയർമെൻ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെ ഏതൊക്കെ റൂമുകളാണ് ഏതൊക്കെ സ്പേസുകളാണ് നിങ്ങൾക്ക് ഇൻ്റീരിയറ് ചെയ്യാൻ

ആ ആ ഞാൻ ഞാൻ പറയാം ഞാൻ ഓരോ ഓരോ സ്പേസുകൾ വച്ചിട്ട് ഞാൻ പറയാവേ ഇപ്പോൾ ആദ്യം നമ്മൽ കയറി വരുമ്പോൾ നമ്മളെ വീടിൻ്റെ കോമൺ ഏരിയ നമ്മുടെ ലിവിംഗ് റൂമാണ് അപ്പോൾ ലിവിംഗ് റൂമിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇങ്ങനെ സോഫ ഒക്കെ വരുന്നു ആ പിന്നെ ആ അപ്പോൾ നമുക്ക് ലിവിംഗ് റൂമിനും ഡൈനിംഗ് റൂമിനും ഇടയ്ക്ക് നമുക്കൊരു പാർട്ടീഷൻ ഹോള് കൊടുക്കാം അപ്പം ഒരു റൊട്ടേറ്റിംഗ് ടി വി അപ്പം ഡൈനിംഗ് റൂമിലിരിക്കുന്ന ആൾക്കാർക്കും കാണാം ലിവിംഗ് റൂമിലിരിക്കുന്ന ആൾക്കാർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റൊട്ടേറ്റിംഗ് ടി വി വെക്കുന്ന ബേസൊക്കെ ഉള്ളൊരു പാർട്ടീഷൻ ഹോള് നമ്മൾ അവിടെ ചെയ്യാം അപ്പോൾ അങ്ങനെ ലിവിംഗ് റൂമ് കഴിഞ്ഞ് സീലിംഗ് ഡിസൈനും വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം സിമ്പിൾ സീലിംഗ് ഡിസൈനുകളൊക്കെ കൊടുക്കാം നല്ല ലൈറ്റൊക്കെ ആക്കി പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെക്കേഴ്സൊക്കെ ആഡ്ഡ് ചെയ്യാം ഫോട്ടോ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഭിത്തിയിൽ അങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമലായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ബെ ആ പിന്നെ ബെഡ്റൂമ് വരുമ്പോൾ ഞാൻ പ്രിഫെർ ചെയ്യുന്നത് നമുക്ക് ബെഡ് റീഡിസൈൻ ചെയ്യാം വാർഡ്രോബ് ചെയ്യാം ഒരു കളർ തീമ് സെറ്റ് ചെയ്യാം ആ നമുക്കൊരു ഏതെങ്കിലും നിങ്ങൾ നിങ്ങൽ ചൂസ് ചെയ്യുന്ന നമ്മളെ അടുത്ത് കാറ്റലോഗുണ്ടാവും നമ്മൾ കളറ് പറയും അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളറിൽ നമ്മൾ ആ അത് തീമ് സെറ്റ് ചെയ്ത് ചെയ്യും അപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവും ഡ്രസ്സിംഗ് യൂണിറ്റ് വരുമ്പം നമുക്ക് മിററും അതിനോട് ചേർന്നിട്ടൊരു ഫ്ലോട്ടിംഗ് ഒരു ഒരു ടേബിളും വരും പിന്നെ നമുക്ക് വരുന്നത് ബെഡ്റൂമ് വരുമ്പോൾ നമ്മൾ മെയിൻ സാധനം ബെഡ് ബെഡിൻ്റെ ഹെഡ് ബോർഡ് ഹെഡ് ബോർഡിന് പുറകിൽ നമ്മൾ പാനലിംഗ് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുന്നത് വാർഡ്രോബ് വരും നമ്മുടെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നമുക്കത് ഏത് ഏത് കളറിൽ വേണമെങ്കിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം ഏത് സൈസിലേക്ക് വേണമെങ്കിലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ബെഡ്റൂമ് വരുമ്പോൾ അങ്ങനെയാവുക കിച്ചൻ ചെയ്യാനുണ്ടോ കിച്ചൻ കിച്ചൻ ഏരിയ ആ ആ ആ അപ്പോൾ ഓപ്പൺ കിച്ചൻ നമുക്ക് ചെയ്യാൻ പറ്റും ഓപ്പൺ കിച്ചൻ വരുമ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറ് മാത്രമേ വരത്തുള്ളൂ ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ പുറകിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന കുറച്ച് ഏരിയ വരുന്ന പോലെ ആണ് നമ്മൾ ഓപ്പൺ കിച്ചൻ എന്നു പറയുന്നൊരു സിസ്റ്റം വരുന്നത് അപ്പോൾ അവിടെ ആ കിച്ചൻ ആക്ച്വലി ശരിക്കും എല്ലാവരും യൂസ് ചെയ്യത്തില്ല കാരണം നമ്മുടെ ഒരു നമ്മുടെ ഈ നാട്ടിലൊരു ഇത് വച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ സ്മെല്ലൊക്കെ ഒത്തിരി അകത്തേക്ക് വരുന്നതുകൊണ്ട് ഇപ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് എന്തായാലും ഒരു വർക്കിംഗ് കിച്ചൻ വേണ്ടി വരും അപ്പോൾ ഈ ഓപ്പൺ കിച്ചണിലും വർക്കിംഗ് കിച്ചണിലും നമ്മൾ അപ്പർ ആൻഡ് ലോവർ ക്യാബിനറ്റ്സുകൾ അടിക്കേണ്ടി വരും ആ അപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ ഉദ്ദേശിക്കുന്നത് ആ ആ ആ ആ ആ ബാത്ത് അത് നമ്മളെ ബെഡ്റൂമിൻ്റെ തീമിനനുസരിച്ച് നമ്മൾ ബാത്റൂമ് നമുക്ക് സെറ്റ് ചെയ്യാം ആ എന്തെങ്കിലൊരു ആ എന്തെങ്കിലൊരു ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഷെയർ ചെയ്ത് തന്നാൽമതി ബാക്കി നമുക്ക് ഫർദർ കോൺടാക്ട് ചെയ്യാം ആ ആ ഓക്കെ